എനിക്ക് ഇഷ്ടപ്പെട്ട കായിക ഇനം ക്രിക്കറ്റാണെനിക്കേറ്റവും ഇഷ്ടം അത് കാണാൻ ഭയങ്കര ഇഷ്ടമാണ് എനിക്ക് ക്രിക്കറ്റ് കാണാനും കളിക്കാനും ഞാൻ എൻ്റെ ചെറിയ പ്രായത്തിലെ മുതല് എൻ്റെ എനിക്ക് പിന്നെ മൂന്ന് ആങ്ങളമാരും ഞാനുവാണ് ഉള്ളത് പക്ഷെ ഞങ്ങളുടെ വീട്ടിൽ ഞങ്ങളെപ്പോഴും ക്രിക്കറ്റ് കളിക്കും കളിക്കുക എന്ന് പറയുമ്പോൾ ഉടനെ എടുക്കുന്നത് ക്രിക്കറ്റാണ് കളിക്കുന്നത് ഞങ്ങള് അത് ബാറ്റ് ചെയ്യാനാണ് എനിക്ക് കൂടുതൽ ഇഷ്ടം എനിക്ക് ഇന്ത്യയുടെ ക്രിക്കറ്റ് ടീമീന്റെ അകത്ത് ആ ഏത് ഏത് ഏതൊക്കെ ദിവസങ്ങൾ ഇന്ത്യയുടെ കളികളുണ്ടോ അതെല്ലാം ഞാൻ ഇരുന്ന് കാണാറുണ്ട് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ക്രിക്കറ്റ് കളി കാണാനായിട്ട് അതിനകത്ത് ഓരോ അംഗങ്ങളും എത്ര ഭംഗിയായിട്ട് പ്ലേയ് ചെയ്യുന്നത് എന്നുള്ളത് വളരെ ഇൻറ്ററസ്റ്റിങ് ആയിട്ട് കണ്ടുകൊണ്ടിരിക്കുക ഒര് കളി കണ്ടില്ലെങ്കിൽ എനിക്ക് സമാധാനം ഉണ്ടാകില്ല ആ ഞാന് ഒര് മിസ്സാവാൻ ഞാൻ സമ്മതിക്കത്തില്ല ഒര് കളി പോലും മിസ്സാകാനായിട്ട് ക്രിക്കറ്റ് കളിയില് എൻ്റെ വീട്ടിൽ എല്ലാവരും തന്നെ ഇരുന്ന് ഞങ്ങള് കാണുന്ന ഒരു കളിയാണ് ക്രിക്കറ്റ് കളി അത് എല്ലാവർക്കും വളരെ ഇൻട്രസ്റ്റിങ്ങായിട്ട് എത്ര ജോലികളെല്ലാം ഉണ്ടെങ്കിലും ഞങ്ങളതെല്ലാം മാറ്റി വെച്ച് അതിന് വേണ്ടി സമയം കണ്ടെത്തിയിരുന്നു ക്രിക്കറ്റ് കളി കാണും ഇപ്പം തന്നെ ക്രിക്കറ്റ് ഇന്ത്യ ജയിച്ചപ്പഴത്തേക്ക് ആ ഉണ്ടായ സന്തോഷം നമ്മളുടെ കുടുംബത്തിൽ നമ്മുടെ വീട്ടിലെന്തോ ഒരു സംഭവത്തിൽ വിജയം നേടി എന്നൊക്കെയുള്ള രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് വളരെ അധികം സന്തോഷ ഉള്ളൊര് കാ കായിക ഇനമാണെനിക്ക് ക്രിക്കറ്റ് ആ എനിക്ക് കളിക്കാനാണ് കൂടുതൽ ഇഷ്ടം എങ്കിലും ഇപ്പം ഈ പ്രായത്തിൻ്റെ അധികത്തിൽ ഇപ്പോൾ കളിക്കാൻ പറ്റത്തില്ലല്ലോ കളി കാണുക ചെയ്യുന്നതിപ്പം ആ കണ്ട് ആസ്വദിക്കുന്ന ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം